ആ ടാ പറയെടാ എപ്പോഴാണ് ടാ വരുന്നത് അവർ ആണോ ആ ഹോം സ്റ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവന്മാർക്ക് വേണ്ടതെന്ന് അറിയാമോടാ അടിക്കാനുള്ള എങ്ങനെയാകും അടിക്കാനുള്ളത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവന്മാർ അത് വാങ്ങിയിട്ട് വരുമോ അതോന്നാ ഇവിടെ ഈ റൂമ് കൊടുക്കുന്ന ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നതായിരിക്കുമോ എങ്ങനെയാന്ന് ചെയ്യണ്ടേ എടാ നമുക്കില്ല ആണോ അപ്പോൾ നമുക്ക് ഇങ്ങനെ റൂമ് അവിടെ ഈ റിസോട്ട്കളിൽ സെറ്റപ്പാക്കി കൊടുക്കുന്ന സ്ഥലം തന്നെ നോക്കേണ്ടി വരും അല്ലേടാ എങ്ങനെ സ്വിമ്മിംഗ് പൂള ഒക്കെ ഉള്ള ഇതാണോ നോക്കേണ്ടത് അങ്ങനെ ആ നമുക്ക് ഇവിടെ പടിഞ്ഞാറ് തറയുണ്ട് കൽപ്പറ്റയുണ്ട് മുട്ടിൽലേക്കുണ്ട് പുൽപ്പള്ളിയും തിരുനെല്ലിയും അവിടെയൊക്കെ ഉണ്ട് പുൽപ്പള്ളിയും അവിടെയൊക്കെ നല്ല വൈബാടാ നിന്നെ ഒരു തവണ ഞാൻ പുൽപ്പള്ളി കൂട്ടി കൊണ്ട് പോയിട്ടില്ലേ നിനക്ക് ഓർമ്മയില്ലേ ആ അവിടെ നിനക്ക് അറിയാമല്ലോ അവിടെ എങ്ങനെയാണെന്ന് നിനക്ക് അറിയാമല്ലോ അവിടെ വെച്ചല്ലേ നമ്മൾ അന്ന് ഒത്ത് കൂടിയത് അവിടെ അവിടെ ഇപ്പം പുതുക്കി എടാ ഇപ്പോൾ അന്ന് നമ്മൾ പോയപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഇപ്പം റേറ്റ് കൂടിയിട്ടുണ്ട് ഇപ്പം പുതുക്കിയെല്ലം പണിത് പിന്നെ എല്ലാം എ സി ഒക്കെ ആയത്കൊണ്ട് ഇപ്പോൾ രണ്ട് റുപ്യ വരുന്നുണ്ട് ആ എത്ര പേരാണ് ഉണ്ടാവുക പത്ത് പേര് അപ്പം എങ്ങനെയാണ് രണ്ട് റൂമ് മതിയോ അതോ രണ്ട് പേര് മാത്രമായിട്ട് കെ ഡബ്ൾ റൂമ് രണ്ട് എണ്ണം മതിയല്ലേ പത്ത് പേര് അഞ്ച് പേര് അഞ്ച് പേര് കിടന്നോളും അല്ലേ നീ ഉണ്ടോ അതിൽ ആ ടാ ആ അവിടെയുള്ള ചെക്കന്മാരാല്ലേ നിൻ്റെ കൂട്ടുകാരന്മാരാ നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുമോടാ നിനക്കും ആ എനിക്കും കിട്ടണമല്ലോടാ അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ എത്ര റെൻറ്റ് വരും ഇതിപ്പോൾ ഡബ്ൾ റൂമീനെന്ന് വെച്ച് കഴിയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് ഏ സി ഏ സി വേണമല്ലോ ടി വി എല്ലം ഉള്ളത് തന്നെ വേണ്ടി വരുമല്ലോ അവന്മാർക്ക് റൂം ചിലപ്പോൾ സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പൂൾൻ്റട്ത്ത്ള്ള തന്നെ വേണ്ടി വരുമല്ലേടാ അങ്ങനെയാകുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് തന്നെ വരും അപ്പോൾ നമുക്ക് എത്ര പറയാൻ പറ്റുമോ റൂമിന് നാലായിരത്തി അഞ്ഞൂറ് വരും അപ്പം നമുക്ക് എത്ര പറയാൻ പറ്റുമെടാ ആറായിരം പറയാമല്ലേ എന്നെ വിളിക്കുമോ അവന്മാർ അവൻമാർ എപ്പോഴാണ് എത്തുക നാളെ നാളെ രാവിലെ ആകുമ്പോഴത്തേന് എത്തുമെന്ന് പറഞ്ഞോ അവന്മാർക്ക് വൈകുന്നേരത്തേക്കാണോ ബുക്ക് ചെയ്യേണ്ടതോ എത്ര ദിവസത്തേക്കാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയാമോടാ ആ നീ വേറെ എവിടെയും വിടണ്ട അവന്മാർ വാ അഡ്ജസ്റ്റെ ചെയ്തു ബുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഒക്കെ പറ നമുക്ക് രണ്ട് പേർക്കും കമ്മീഷൻ ഒക്കെ കിട്ടണ്ടേ ആ പിന്നെ ഞാൻ കാര്യം പറഞ്ഞിട്ട് ഇനി അതിൽ നാലായിരത്തി അഞ്ഞൂറിൽ ക്യാം ഫയറും ഇതൊക്കെ തരും കേട്ടോ പക്ഷേ നമുക്ക്

അതൊക്കെ ഉണ്ടാകുമെടാ അതൊക്കെ സെറ്റപ്പാണ് അതൊക്കെ നമുക്ക് റെഡി ആക്കി കൊടുക്കാം നീ പേടിക്കണ്ട അതൊക്കെ നമുക്ക് സെറ്റ് കൊടുക്കാം

ഒക്കെ വേണമെങ്കിൽ ആദ്യമേ പറയാൻ പറയണം അവന്മാരോട് മനസ്സിലായില്ലേ ആദ്യമേ പറഞ്ഞില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വല്ലതും ഒത്തിരി ചൂടായിട്ടൊന്നും കാര്യം ഉണ്ടാവില്ലടാ നിനക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് എടുക്കാൻ പോകണം എവിടെ ഒക്കെ പോകണം എന്നൊക്കെ നിനക്ക് അറിയാമല്ലോടാ ചിലപ്പം വാറ്റ് ഒക്കെ വേണ്ടി വരുമല്ലേടാ അവന് അപ്പം അതൊക്കെ നമുക്ക് അറിയാമല്ലോ എവിടെയൊക്കെ പോകേണ്ടി വരുമെന്ന് അപ്പം പെട്ടെന്ന് പറയത് പറയണം എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂറിന് മുമ്പ് വേണമെന്ന് പറയണം അവന്മാർ എങ്ങനെയായിരുന്നു വണ്ടിയിലാണോ അതോ ബസ്സിലാണോ അപ്പം എങ്ങനെയാണ് കോഴിക്കോടെന്ന് എങ്ങനെയാണ് പിക്ക് ചെയ്യാൻ പോകേണ്ടി വരുമോ ആ ടാ കോഴിക്കോടുന്നാണോ ആ അവന്മാർ എന്തായാലും രാവിലെ ആകുമ്പോൾ അല്ലേ എത്തുകയുള്ളൂ രാവിലെ നമ്മൾ പിക്ക് ചെയ്യാൻ പോകേണ്ടി വരുമല്ലേടാ ആ എന്നിട്ട് രാവിലെ തന്നെ റിസോട്ട് കൊണ്ട് പോകാമല്ലേ നേരെ റിസോട്ട് കൊണ്ട് പോകാനാണോടാ ആ ഫസ്റ്റ് ഒരു രണ്ട് റൂമിൽ പന്ത്രണ്ട് അടക്കാൻ പറയണം അഡ്വാൻസ് ആയിട്ട് പിന്നെ അഞ്ച് ദിവസത്തേക്കല്ലേ അത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയാം പിന്നെ നിനക്ക് എന്തൊക്കെയാണ് പരിപാടി അവൻമാർ എങ്ങനാണ് അലമ്പ് ടീമ്സ അല്ലല്ലോടാ ആ അപ്പം റൈറ്റ് കൂട്ടുകാരാന്ന് വിശ്വസിക്കാമല്ലേ അങ്ങനെയാണേൽ ഞാൻ ബുക്ക് ചെയ്യാൻ നീ എന്നാൽ വിളിച്ചാൽ മതി ഞാൻ ചെയ്യാം എന്നാൽ അത് തന്നെ ബുക്ക് ചെയ്യാമല്ലേ പുൽപ്പള്ളി ബുക്ക് ചെയ്യാമല്ലേടാ ആ എന്നാൽ ശരിയെടാ ഞാൻ വിളിക്കാം നിന്നെ ആ എന്നെ വിളിക്കുമോ ആ എന്നാൽ ശരിയെടാ